ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ പുരുഷന്മാരും കുട്ടികളും എല്ലാം ചിന്തിക്കുന്ന ഒരു കാര്യമാണ് പാചകം എന്നത് സ്ത്രീകൾക്കു മാത്രമുള്ള ഒരു കാര്യമാണ് എന്നത് പക്ഷേ നേരത്തത്തെ കാലത്തിനേക്കാളും നമ്മളുടെ ഇന്നത്തെ കാലം കുറച്ചുകൂടെ മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് ആൾക്കാർ ചിന്തിക്കുന്നു സ്ത്രീകൾ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമല്ല പാചകം അതിനോടൊപ്പം തന്നെ സ്ത്രീകളെ കൂടെ നിന്ന് സഹായിക്കേണ്ട തൊ ചുമതല ആണുങ്ങൾക്കും ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു അപൂർവ്വം ചില ആണുങ്ങൾ മാത്രം ഒക്കെ എല്ലാവരും അല്ല അപൂർവ്വം ചിലർ മാത്രം എന്നാലും പഴയ ചിന്താഗതികളുള്ള ചില ആൾക്കാർ മിക്ക ആൾക്കാരും ഇപ്പോഴും നമ്മളുടെ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒന്നും ആയതുകൊണ്ട് നമുക്ക് സുഖകരമായി ജീവിക്കാൻ കഴിയില്ല കാരണം ഇന്നത്തെ കാലത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് സ്ത്രീയ്ക്കും പുരുഷനും ജോലിക്ക് പോകേണ്ടതായിട്ടുണ്ട് പണ്ടത്തെ കാലത്തെ പോ പണ്ടത്തെ കാലത്ത് നമുക്കറിയാം ആൾക്കാർ ചിന്തിച്ചിരുന്നത് സ്ത്രീകൾ വീട്ടിലിരുന്ന് പാചകം ചെയ്യണം കുട്ടികളെ നോക്കണം ആണുങ്ങളാണ് ജോലിക്ക് പോകേണ്ടത് എന്നാണ് പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ച് ജോലിക്ക് പോയി പൈസ ഉണ്ടാക്കിയാൽ മാത്രമേ സുഖകരമായി ജീവിക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ടു തന്നെ ഈ പാചകത്തിൽ സഹായിക്കുക പാചകത്തിൽ ഒന്നിച്ച് നിൽക്കുക എന്നത് പാചകത്തിൽ മാത്രമല്ല വീട്ടുകാര്യങ്ങളിൽ എല്ലാം ഒന്നിച്ചു നിൽക്കുക എന്നത് ആവശ്യകരമായ ഒരു കാര്യം തന്നെയാണെന്ന് നമുക്ക് പറയാൻ കഴിയുന്നതാണ് അത് കുട്ടികളിൽ തന്നെ ഈ ചിന്താഗതി നമ്മൾ വളർത്തിയെടുക്കേണ്ടതും ആവശ്യകതമായതാണ്